ഹലോ അബീന ട്രാവൽസല്ലേ സാറേ വേളാങ്കണ്ണിയിലേക്കേ എയിട്ടീൻ സീറ്റ് ട്രാവലർ നമുക്ക് അടുത്ത ബുധനാഴ്ച്ചത്തേക്ക് പോവാന് വേണ്ടിയായിരുന്നെ അതിനെന്ത് വില വരും സാറെ അതെ വേളാങ്കണ്ണിയിലേക്ക് അടുത്ത ബുധനാഴ്ച എയിട്ടീൻ സീറ്റേ പത്തൊമ്പതിനായിരമോ സാറേ അത് വളരെ കൂടുതലാണല്ലോ സാറേ ഞങ്ങള് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് നിങ്ങളുടെ വണ്ടിയെ തന്നെ ഈ ബീന ട്രാവെൽസില് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്ക്ക് ഒരു പതിനയ്യായിരം രൂപ പതിനാലെ പതിനഞ്ചെ ആ റേഞ്ചിലാണ് വരുന്നത് അപ്പോഴത് ആദ്യമായിട്ടാണ് ഈ പത്തൊമ്പതിനായിരം രൂപ വന്നിരിക്കുന്നെ അതെങ്ങനാ സാറെ ഇത്രയും രൂപ ചെയ്ഞ്ചാവുന്നത് ആണോ ശെന്നാലിപ്പീ ഡീസലിൻറ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ മൂന്ന് വർഷമായിട്ട് ഡീസലിന് വിലയൊന്നും കൂടിയിട്ടില്ലല്ലോ പതിനെഞ്ചൊക്കെ പതിനഞ്ച് രൂപയ്ക്കാണ് ഞങ്ങള് ലാസ്റ്റ് പോയത് ഒര് പതിനാറ് രൂപയ്ക്കാണെങ്കിൽ നമുക്ക് താൽപര്യമുണ്ട് കാരണം പതിനഞ്ച് രൂപയ്ക്ക് പോയി ആയിരം രൂപ ഓക്കെ അത് ഞങ്ങള് സമ്മതിക്കാം പതിനാറ് രൂപയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ളു സാറേ അങ്ങനാണെങ്കില് വിവരം അറിയിക്കണേ നമ്പര് ഈ വിളിച്ച നമ്പര് തന്നെയാണ് ഓക്കെ അപ്പോള് ഇന്നുതന്നെ അറിയിക്കാൻ പറ്റുമെങ്കില് അറിയിക്കുക ഓക്കെ